നമ്മൾ മലയാളികൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ എപ്പോഴും അഭിമാനത്തോടെയാണ് കാണുന്നത് നമ്മൾ എവിടെപ്പോയാലും ഒരു മലയാളി ഉണ്ടെങ്കിൽ നമ്മൾ മലയാളം മാത്രമേ സംസാരിക്കുകയുള്ളൂ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം തൊട്ടിട്ട് അങ്ങ് കാസർഗോഡ് വരെ നോക്കുകയാണെങ്കിൽ ഭാഷയിൽ കുറെ വൈവിധ്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ വ്യക്തിത്വത്തെയാണ് അതിന് നമ്മൾ പ്രാധാന്യം നല്കുന്നത് ഓരോ വ്യക്തിക്കും ഓരോ ഭാഷയും ഓരോ സ്ഥലത്തും ഓരോ തരം ഭാഷാശൈലികളും ഉണ്ട് അതായത് നമ്മൾ കാസർഗോഡ് തൊട്ടിട്ട് തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ കാസർഗോഡ് തൊട്ടിട്ട് കണ്ണൂർ ഭാഷ കണ്ണൂരൊക്കെ ആണെങ്കിൽ നമ്മുടെ മലയാള ഭാഷ എന്നു പറയുമ്പോൾ വളരെ സ്പീഡിലാണ് സംസാരിക്കുക അതുപോലെ തന്നെ ഭാഷാശൈലിയും ഒരുപാട് വ്യത്യാസമുണ്ട് വാക്കുകളിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുപോലെ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ കുറച്ച് പതുക്കെയാണ് അവരൊക്കെ സംസാരിക്കുക അതുപോലെ അച്ചടി ഭാഷകളാണ് സംസാരിക്കുക അതുകൊണ്ടുതന്നെ ഭാഷയുടെയും ഭാഷാ ശൈലിയിലെയും വ്യത്യാസങ്ങൾ ഒരുപാട് വരുന്നുണ്ട് മലയാള ഭാഷയാണെങ്കിൽക്കൂടി